ഈ പ്രദേശത്ത് ഒരുപാട് പക്ഷികള് വരാറുണ്ട് അതില് തത്തെയെ കാണാറുണ്ട് പിന്നെ കാക്കകള് പ്രാവുകള് പരുന്തുകൾ ഈ കൊക്കുകള് അതുപോലെ എരണ്ടകള് പിന്നെ കുഞ്ഞു കുഞ്ഞു കുരുവികള് അതായത് നമ്മുടെ ഈ ചെടിയിൽ പൂവില് തേൻ കുടിക്കാനൊരു കുഞ്ഞ് കുരുവി വരും കുഞ്ഞി കുരുവി എന്ന് വച്ചാല് ചെറിയൊരു ഉള്ളി വലിപ്പത്തിൽ ഉള്ള അത്രയൊക്കേ കാണത്തുള്ളൂ ഞങ്ങള് ചിലപ്പോൾ അത് ഈ ചെടിയുടെ ഇലയിൽ തന്നെ കുഞ്ഞി കൂട് കൂട്ടി ഇരിക്കുന്നത് കാണാം നല്ല ഭംഗിയാണ് ചെറിയ രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരുതരം ഇതാ പക്ഷിയാണ് അതുപോലെ ആ മാടത്ത മാടത്തയുണ്ട് മൈന പിന്നെ ഇതുപോലെ മഞ്ഞക്കിളികള് പലതരം കളറിലൊള്ള കിളികള് വരാറുണ്ട് അത് എന്തുവാന്നൊന്നും അതിനെപ്പറ്റി പേരൊന്നും അറിയത്തില്ല ചെറിയ ബ്രൗൺ നിറത്തിലൊള്ള കിളികള് അത് വന്ന് ഈ ആത്തച്ചക്കയൊക്കെ കൊത്തി കൊത്തി കഴിക്കുന്നത് കാണാം ആത്തച്ചക്ക അതുപോലെ നമ്മുടെ സപ്പോർട്ട അതിലൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി ഇടുന്നത് കാണാം അതുപോലെ തത്ത വരാറുണ്ട് പിന്നെ ഈ കളർ കിളികളൊരു പ്രത്യേക സൗണ്ടാണ് അവര് വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ടിങ്ങോട്ട് വരും കുറച്ച് നേരം എന്തെക്കെയോ വലിയ പണികൾ ചെയ്യുന്നത് കണക്ക് വന്ന് നിന്ന് പെട്ടെന്ന് ചെയ്തിട്ടൊക്കെ പോകുന്നത് കാണാം പിന്നെ സ്ഥിരവായിട്ട് പരുന്തുകളുണ്ട് പരുന്തും അതിൻ്റെ കുഞ്ഞുങ്ങളും നമ്മുടെ വീടിന് മുകളിങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കാണാം അതിനെ ചിലപ്പോളക്കെ നമ്മള് നോക്കാറൊണ്ട് ആ കറക്റ്റ് റൗണ്ടില് ഒരാള് പറക്കുന്നതിൻ്റെ തൊട്ട് പാരലലായിട്ട് അടുത്താള് ആ റൗണ്ട് കുറച്ച് താന്നിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അതൊന്നു ആരൊക്കെയോ പഠിപ്പിച്ച് കൊടുത്ത രീതീയിലുള്ള പരുന്തുകള് പറക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാ കിളികളെയും ഇഷ്ടമാണ് കിളികൾ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല പൂക്കൾ കൂടുതലുള്ളപ്പഴും ഫലങ്ങൾ കൂടുതലുള്ളപ്പഴും കിളികൾ വരും കൂടുതലായിട്ട് കാണപ്പെടും അതില് എല്ലാ കിളികളെയും കാണുന്നത് തന്നെ ഒരു സന്തോഷം രാവിലെ കിളികളുടെ സൗണ്ട് കേട്ടെഴുന്നേൽക്കുന്നത് അതും ഒരു സന്തോഷം